ഹലോ ആ ഞാനേ ഒരു അര മുക്കാമണിക്കൂർ മുന്നേ ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നേ അപ്പം പെട്ടന്ന് എനിക്കൊന്ന് മാലാഞ്ചിറ വരെ പോകേണ്ടത് കൊണ്ട് ബുക്ക് ചെയ്തത് നടക്കാവുന്നാണ് ബുക്ക് ചെയ്തത്

അപ്പോൾ ഞാന് കുറച്ച് ഒരു നൂറ് രൂപയോ മറ്റോ ഡ്രൈവർക്ക് അഡ്വാൻസ് രീതിയില് കൊടുത്തിരുന്നു അപ്പോൾ എനിക്ക് അത് ഒന്ന് റീഫണ്ട് ആക്കാൻ പറ്റുവാണെങ്കിലേ വളരെ ഉപകാരായിരുന്നു എനിക്ക് ഇപ്പോൾ എന്തായാലും വണ്ടിയിൽ പോകാനും പറ്റില്ല പ്രശ്നമാകും അപ്പം ഒന്ന് ജി പേ വഴിയോ അല്ലെങ്കില് ഫോൺ പേ വഴിയോ ആയാലും മതി അല്ലെങ്കില് അക്കൗണ്ട് നമ്പറുണ്ട് അക്കൗണ്ട് നമ്പറും ഐഎഫ്എസ്സിയും ഞാൻ അയച്ച് തരാം അതിലേക്കായാലും മതി അപ്പോൾ ഒന്ന് നോക്കീട്ടൊന്ന് ചെയ്യുമോ പിന്നെ അഡ്വാൻസ് തന്ന് കഴിഞ്ഞാല് ഇല്ലെങ്കില് നമ്മളിത് പിന്നീട് റഫർ ചെയ്യില്ലലോ ആർക്കും ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് റഫർ ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ഞാൻ അന്ന് ബുക്ക് ചെയ്തിരുന്നതാ എനിക്ക് ഇത് അവര് ചോദിച്ചപ്പോൾ തന്നെ പണം റീഫണ്ട് ചെയ്ത് തന്നു പോകാൻ പറ്റീലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ഇതാകുവല്ലോ